അക്ബർ ട്രാവൽസ് അല്ലേ ആ ഇത് എൻ്റെ പേര് സത്താർ എന്നാണ് ഞങ്ങൾ കാസർഗോഡ് ടൂറിസ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇത് ടൂറിസ്റ്റ് മെയിന് വരാൻ വേണ്ടിയിട്ട് പ്ലാൻ ആക്കിയിട്ടുള്ളത് ആ ഫാമിലി ഫാമിലി ടൂർ ആയിട്ട് വരാനാണ് പ്ലാനുള്ളത് നെക്സ്റ്റ് മന്ത് നെക്സ്റ്റ് മന്ത് പത്ത് ടു ഇരുപത് വരെ ഉണ്ടാവും ആ അപ്പോൾ ഇത് അവിടെ ബേക്കൽ ഫോർട്ട് മലയനാട് അതെല്ലം ഇല്ലേ കുറച്ച് ടൂറിസ്റ്റ് പ്ലേസസ് എല്ലാം ഇല്ലെ ആ ഇത് അവിടേക്കെല്ലാം

ആ ഇപ്പോൾ ഒരു ഫാമിലി പാക്കേജായിട്ട് എടുക്കുമ്പോഴേക്ക് എത്ര ആവും ഏകദേശം റേറ്റ് എല്ലാം ഒരു ഒരു പത്ത് ദിവസം ഉണ്ടാവും അല്ല പത്ത് ദിവസം എന്ന് അല്ല പത്ത് ദിവസം എന്ന് ഇത് നാലഞ്ച് ദിവസം കഴിഞ്ഞ് ഞങ്ങളെ ഇത് എല്ലാം ആവുന്നുണ്ട് എന്തുണ്ടെങ്കിൽ വരാൻ പോവാൻ ഉള്ള ഇത് എല്ലാം ആവുന്നുണ്ട് ഞാൻ എറണാകുളത്തു നിന്നാണ് വരുന്നുള്ളത് ആ അതെ അപ്പോൾ എന്തായാലും ഒരു ദിവസം പോവാനും വരാനും വേണം ഒരു ദിവസം പോവാനും ഒരു ദിവസം വരാനും വേണം രണ്ട് ദിവസം അവിടെ തന്നെ പോയില്ലേ പിന്നെ അക്കോമഡേഷനും ഫുഡ്ഡും ഇത് എല്ലാം അങ്ങനെ ഇത് എല്ലാം കൂടിയിട്ട് എത്ര ആവും ടോട്ടല്

അത് തന്നെ ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഞാനും എൻ്റെ വൈഫും പിന്നെ മൂന്ന് കുട്ടികൾ ആണ് വരുന്നുള്ളത് ഫാമിലി ആയിട്ട് അപ്പോൾ ഏകദേശം പ്രൈസ് എത്ര ആവും ഏകദേശം എത്ര ആവും ഞാന് ഞാൻ എറണാകുളത്തു നിന്നാണ് വരുന്നുള്ളത് ഇവിടെ ഇപ്പോൾ കാസർഗോഡു വരെ കാസർഗോഡ് ഉള്ളത് വരെ ഞങ്ങളെ ചിലവിന് തന്നെ പോകണം അല്ലേ ആ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് ആ ഇപ്പോൾ ഏകദേശം എത്ര ആവും ഫാമിലി പാക്കേജ് എടുക്കുമ്പോൾ ഞങ്ങൾ അഞ്ച് പേർ

പെർ ഹെഡ്ക്ക് തൗസൻഡ്

ഓക്കെ ഞാൻ ഓക്കെ ഓക്കെ ഞാൻ അത് നാളെ വിളിക്കാം കേട്ടൊ